ആദ്യമായിട്ട് പൂന്തോട്ട പരിശീലനം അല്ലെങ്കിൽ ഈ പൂന്തോട്ടം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പരിപാലനത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ നല്ലൊരു പൂച്ചട്ടി വാങ്ങിക്കും അപ്പം ആ പൂച്ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ച് സാധാരണ എല്ലാവരും ചെയ്യുന്നതുപോലെ ചാണകവും വളവും അത് മണ്ണും എല്ലാം പൂഴിയും എല്ലാം കൂടിയിട്ടിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഈ ചെടികളൊക്കെ നട്ട് നന്നായിട്ട് വെള്ളമൊക്കെ നനച്ച് അത് വളർന്നു വരുമല്ലോ പിന്നെ തൂമ്പയും കൈക്കോട്ടും പിന്നെ ചെറിയ പിച്ചാത്തി എടുക്കും എന്തിനാണ് വെച്ചാൽ പിച്ചാത്തിനേം കൊണ്ട് റോസ് ഒക്കെ ആണെങ്കിൽ പിച്ചാത്തിനെ കൊണ്ടാണ് ഞാൻ നല്ല വൃത്തിയിൽ മുറിക്കുന്നത് പിന്നെ അതിന്റേതായ ഒരു കത്രികയുണ്ട് എൻ്റെ കയ്യിൽ ചെടി മുറിക്കാനായിട്ടുള്ള കത്രിക അത് വെച്ചിട്ടും ഉപയോഗിക്കും അല്ലെങ്കിലും നമ്മൾ ഓരോന്നിങ്ങനെ പൊട്ടിക്കുമ്പോൾ ജസ്റ്റ് മടക്കിയിട്ട് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഇത് തൊലിപോലെയൊക്കെ ഇളകിയിട്ട് ചിലപ്പോൾ ആ ചെടിയും ഉണങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കൃത്യമായ കത്രിക വെച്ചിട്ടുതന്നെ ചെടികളൊക്കെ മുറിക്കുന്നത് ചിലപ്പോൾ അയൽ വീട്ടിലെ ആൾക്കാരൊക്കെ വന്നിട്ട് ചെടിക്കൊക്കെ ചോദിക്കും അപ്പോൾ പൊട്ടിച്ചു കൊടുക്കാറില്ല അങ്ങനെ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ കത്രികയെ കൊണ്ട് നല്ല വൃത്തിയിൽ മുറിച്ചിട്ടുതന്നെ കൊടുക്കും അപ്പം ആ പൊതുവേ ഞാൻ എല്ലാ ചെടികളും ഒരേ ലെവലിൽ ഒരുപാട് വളർന്നു പോകാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെക്കൊണ്ട് എപ്പോഴും എത്തിപ്പിടിച്ച് നമുക്ക് വൃത്തിയാക്കാനും ഒക്കെ പറ്റുന്ന വിധത്തിലുള്ള ചെടികളാണ് നടാറുള്ളത് അതുപോലെ നമ്മൾ തൂക്കുന്ന പുല്ലുണ്ട് അതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നു പോയി അതൊക്കെ നടുമായിരുന്നു അതും നല്ല എല്ലാം ഒരു അഞ്ചു പത്തു ചട്ടിയിൽ ഒരേ പോലെ തൂക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കത്രിക വെച്ചിട്ട് നല്ല വൃത്തിയിൽ മുറിച്ചിട്ടാണ് എടുക്കുക അപ്പം പിന്നെ ഒരു വെള്ളം നിറക്കുന്നതിനായിട്ട് ഒരു ക്യാൻ ഉണ്ട് ആ ക്യാൻ വെച്ചിട്ട് മാത്രമേ ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കാറുള്ളൂ കാരണം മറ്റേ ഓസ് പൈപ്പിൽനിന്ന് ഡയറക്റ്റ് കൊടുക്കാറില്ല അപ്പോൾ ഓസ് പൈപ്പിൽനിന്നാകുമ്പോൾ ഡയറക്റ്റ് വരുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വെള്ളം പോകും അപ്പോൾ ചെടികളൊക്കെ കേടുവരാൻ ചാൻസസ് കൂടുതലാണ് അപ്പോൾ എപ്പോഴും ഈയൊരു ക്യാനിൽ വെള്ളം നിറച്ചിട്ട് ആ ക്യാനിൽനിന്ന് ഒറ്റി ഒറ്റിയിട്ട് വരുന്നത് പോലെയൊരു ക്യാൻ ആണ് അരിപ്പ വെച്ചിട്ട് വരുന്നത് പോലത്തെ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ചെടികൾക്ക് പെട്ടെന്ന് കേടൊന്നും വരില്ല